ഉയർന്ന പ്രദേശങ്ങളിലോ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിലോ ചെരിഞ്ഞ പ്രദേശങ്ങളിലോ ആണല്ലോ നമ്മൾ സാധാരണഗതിയിൽ കാപ്പിയും തേയിലയും കൃഷി ചെയ്യാറുള്ളത് അത് ഒരു ശരിക്കും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാർഷികവൃത്തിയാണ് ഈ തേയിലയും കാപ്പിയും കൃഷി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഈ ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മൾ കാപ്പിയും തേയിലയും ഒക്കെ കൃഷിചെയ്ത് കഴിയുമ്പോഴേക്കും ശക്തമായ മഴ പെയ്യുമ്പോഴുള്ള ആ മണ്ണൊലിപ്പ് നമ്മുടെ കൃഷിക്ക് വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് നമ്മളെ ആ കൃഷിക്ക് ചെയ്യുന്ന വളം സമ്പുഷ്ടമായ വളമൊക്കെ നല്ല മഴ വരുമ്പോഴേക്കും ഒഴുകി താഴേയ്ക്ക് പോകുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള അനുഭവമാണ് പിന്നെ നമുക്ക് ഈ കൃഷിയിലേർപ്പെട്ടിരിക്കുന്നവർക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ വന്യജീവികളുടെ ചെറിയ മൃഗങ്ങളുടെ ആക്രമണം ഈ തേയിലക്കൃഷിക്ക് ഉള്ള ഒരുതരം പച്ചനിറത്തിലുള്ള ഒരു തരം പുഴു അത് വലിയ ഭീഷണിയാണ് ഈ മൃഗങ്ങൾ പലപ്പോഴും കാട്ടുപന്നികൾ പലപ്പോഴും കൃഷിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും പോകുന്നുണ്ട് പിന്നെ നിലം വളരെ നന്നായിട്ട് നമ്മൾ ഇളക്കി ആദ്യം ഒരു പ്രാവശ്യം ഈ ചാണകപ്പൊടി നിലത്ത് മുഴുവൻ നന്നായിട്ട് വിതറിയതിനുശേഷം പുല്ലൊക്കെ മാറ്റിക്കളഞ്ഞതിൻ്റെ കളകളെല്ലാം എടുത്തുകളഞ്ഞതിനുശേഷം ചാണകപ്പൊടി വിതറി നന്നായിട്ട് നിലം ഉഴുതുമറിച്ച് കിളച്ച് മറിച്ച് ഒരുക്കിയാണ് നമ്മൾ കുഴികളെടുത്ത് ഈ കാപ്പി തേയിലയൊക്കെ നമ്മൾ നടാറുള്ളത് നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യുന്ന കൃഷിയുടെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളനുഭവിച്ച് പണം മുടക്കി വായ്പാസംഘങ്ങളിൽനിന്ന് വായ്പയെടുത്ത് പണം മുടക്കിവരുന്ന കൃഷികൾക്ക് കൃഷി ചെയ്യുമ്പോൾ ആ കൃഷികൾക്കുണ്ടാകുന്ന ഈ കീട ആക്രമണങ്ങളെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ഈ മൃഗങ്ങളുടെ ആക്രമണങ്ങളുമെല്ലാം വലിയ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഈ കൃഷിയിൽനിന്നും കിട്ടുന്ന ഉല്പ്പന്നങ്ങൾ അവിടെ നിന്നും കടത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അതേ ആ കൃഷിയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ആദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ വാഹനങ്ങളുപയോഗിച്ച് ഉല്പ്പന്നങ്ങൾ കടത്തും ഇല്ല നമ്മുടെ ഈ വിളവു വളരെ മോശമാണ് വളരെ കുറഞ്ഞ രീതിയിലേ ഈ പ്രാവശ്യം വിളവ് വളരെക്കുറഞ്ഞു വളരെക്കുറഞ്ഞ വിളവേ കിട്ടിയിട്ടുള്ളുവെങ്കിൽ ചെറിയ വാഹനങ്ങൾ പിക്കപ്പ് പോലുള്ള ചെറിയ വാഹനങ്ങളുപയോഗിച്ച് നമ്മൾ നമ്മുടെ ഉല്പ്പന്നങ്ങൾ കടത്തും അത് സാഹചര്യങ്ങൾക്കനുസൃതമായി കാലാവസ്ഥയുടെ ഒക്കെ അനുസൃതമായി ലഭിച്ചിരിക്കുന്ന കാർഷികമായ ആദായത്തിനനുസരിച്ചാണ് നമ്മൾ ഉല്പ്പന്നങ്ങൾ കടത്തുവാൻ വേണ്ടി വാഹനങ്ങളുപയോഗിക്കുന്നത്